ജനേഷ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ആ ഇതിന്റെ ഓഫർ ഉണ്ട് ബിരിയാണി അരിക്കൊക്കെ നൂറ് രൂപേൻ്റെ ബിരിയാണി അരിക്കൊക്കെ എഴുപത് രൂപ വെച്ചിട്ട് അങ്ങനെ ഒക്കെ ഉണ്ട് പിന്നെ ചിക്കന് ഇപ്പം പുറത്തൊക്കെ ഇരുന്നൂറ്ററുപത് രൂപയാണ് നമ്മൾ ഇപ്പം ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പം ആയിരം രൂപയ്ക്ക് എന്തെങ്കിലും ആയിരം രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കിലോ പഞ്ചസാര ഫ്രീ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ആണെങ്കിൽ അഞ്ച് കിലോ ആട്ടപ്പൊടി ആശീർവാദിൻ്റെ ആട്ടപ്പൊടി ഫ്രീ പിന്നെ നമുക്ക് തക്കാളി തക്കാളിക്കൊക്കെ ഒരു കിലോന് അഞ്ച് രൂപ പിന്നെ ഉള്ളിക്ക് ഇരുപത് രൂപ ആ നെയ്ക്കൊക്കെ ഓഫർ ഉണ്ട് ഒരു കിലോ നെയ്ക്ക് അറുനൂറ് രൂപയാണ് നമ്മൾ ഇവിടെ പിന്നെ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പം നെയ്യൊക്കെ കൊടുക്കുന്നത്

ആ മസാലപ്പൊടി പിന്നെ ഈസ്റ്റേണിന്റെ ഒക്കെ നല്ല ഓഫർ ഉണ്ട് ഈസ്റ്റേണിന് പിന്നെ നമ്മൾ ചിക്കൻ മസാല മേടിക്കുമ്പം അതിൻ്റ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മസാല ഫ്രീ ഉണ്ട് പിന്നെ വേറെ വേറെ എല്ലാം കൂടി ഇപ്പം നമുക്ക് എല്ലാത്തിനും ഓഫർ ഉണ്ട് മാം മാമിന് എന്തായിരുന്നു വേണ്ടത് ആ ഓക്കെ ആ ഉണ്ട് മാം തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരണം സ്ഥലം ഇവിടെ മാനന്ത മാനന്തവാടി ബസ് സ്റ്റാൻഡിന് കുറച്ച് അടുത്ത് കുറച്ച് അടുത്താണ് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നാൽ മതി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ എത്തിച്ച് തരും വീട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും കുഴപ്പം ഇല്ല നിങ്ങൾ അല്ലാണ്ട് ഗൂഗിൾ പേ ചെയ്യുവാണെങ്കിലും കുഴപ്പം ഇല്ല ആ വീട്ടിൽ എത്തിച്ച് തരും എന്തൊക്കെയാണ് മാമിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി ഇനി ഇപ്പം മാം ആ ഓക്കെ മാമിന് അല്ലാണ്ട് ഇവിടെ വന്നിട്ട് നോക്കുവാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് അല്ലെ ഞങ്ങൾ ഇപ്പം മാം പറഞ്ഞത് പോലെ ഞങ്ങൾ എല്ലാം ഇട്ട് തരാം അങ്ങനെ ആണെങ്കിലും കുഴപ്പം ഇല്ല എന്നാൽ ഓക്കെ മാം മാമിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വിളിച്ചാൽ മതി ഞാൻ ഇപ്പം ഇട്ട് തരാം ഓക്കെ ഓക്കെ മാം താങ്ക് യൂ